ഏതൊരു യുവാവിൻ്റെയും പാഷനാണ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ബൈക്ക് എന്നുള്ളത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഇഷ്ടപ്പെട്ട വാഹനങ്ങളുണ്ട് അതിനുള്ള കാരണങ്ങളുമുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലെ വണ്ടി എന്നു പറഞ്ഞാല് റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടിയാണ് അതിന് അതിന്റേതായിട്ടുള്ള മൈലേജുണ്ട് കാര്യങ്ങളുമുണ്ട് അപ്പോള് അതിൻ്റേതായിട്ടുള്ള ഉപകാരങ്ങളുമുണ്ട് സൈഡ് എഫക്ട്സും ഉണ്ടാവും അതെല്ലാം സർവസാധാരണം അപ്പോള് അതിനെ പരിപാലിക്കുന്നതെങ്ങനെയാണെന്നുവച്ചാല് ദിവസവും കൃത്യസമയത്ത് അതിന് എണ്ണ കുറയ്ക്കാറില്ല ഒരു കട്ടയിൽ കുറയ്ക്കാറില്ല ബാറിൽ കാണിക്കുന്ന കൃത്യ അളവിൽ ഒരു ചുവപ്പ് ചുവപ്പ് എന്നുള്ള നമുക്ക് അവര് മുന്നറിപ്പു നൽകുന്നതിനു മുന്നേ തന്നെ എണ്ണയടിക്കും അതിനു വേണ്ട അതുപോലെ അതുപോലെ അതിന് സർവീസ് നേടേണ്ട കൃത്യമായ സമയമായാല് കൃത്യമായ അതിന് സർവീസ് കൊടുക്കുകയും എല്ലാം കൃത്യമായി നിൽകുന്നതാണ് പിന്നെ ഇതിനെ വൃത്തിയോടെ സൂക്ഷിക്കാൻ ദിവസവും ഒരു നേരമതു കൃത്യമായി കഴുകും വൃത്തിയാക്കും അതുപോലെ പരിചയമില്ലാത്തവർക്ക് ഓടിക്കാൻ കൊടുക്കുകയില്ല അതുപോലെ നിയമപരമല്ലാതെ പതിനെട്ടു വയസ്സാവാതെ തികയാത്തവർക്കൊന്നും കൊടുക്കില്ല അതുപോലെ എത്രത്തോളം സൂക്ഷിക്കാൻ കഴിയുമോ അത്രത്തോളം സൂക്ഷിച്ചാണ് ഓടിക്കാറുള്ളത് പിന്നേ ചില സമയങ്ങളിൽ നല്ല വെയിറ്റ് വച്ചു താങ്ങി കനംവച്ചു പോകുമ്പോള് കയറ്റം കയറുന്ന റിസ്ക്കൊക്കെ ഉണ്ടാവും അപ്പോള് സമയം ഗിയർ വർക്കാവാതിരിക്കുകയോ അല്ലെങ്കില് ബ്രേക്കോ കിട്ടാതിരിക്കുമ്പോള് വളരെ കഷ്ടപ്പാടാണ് അപ്പോള് ബ്രേക്കിനാണ് ആകെ പ്രശ്നം ഉണ്ടാവല് അപ്പോള് പലരുടെ സമയത്തും മുൻ ബ്രേക്ക് കയറിപ്പിടിക്കുമ്പോൾ നല്ലൊരു സ്ലിപ്പറി ഒരു വഴുക്കുന്ന വഴുക്കുന്ന ഒരു ഫീലിങ് വരുകയും അതു വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യാറുണ്ട് ഇപ്പോള് എൻ്റൊരു ഫ്രണ്ട് അവൻ ഇങ്ങനൊരു മുൻ ബ്രേക്ക് പിടിച്ചതാണ് ഒരു ചരലുള്ള ഭാഗത്തുകൂടെ പോയപ്പോള് അവൻ്റെ വണ്ടി മറിഞ്ഞ് അവനേക്സിഡന്റായി കിടക്കുകയാണ് അതുപോലെ ബേക്ക് ബ്രേക്കാണ് കൂടുതലും പിടിക്കുന്നതെങ്കിലും ചില സമയങ്ങളില് നമ്മള് ചില എമർജൻസി സിറ്റുവേഷനില് നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മള് അറിയാത്ത പോകും അങ്ങനത്തെ പ്രശ്നങ്ങള് മാത്രം ഉണ്ടാവും അപ്പോള് ദീർഘദൂര യാത്രകളെക്കുറിച്ചു നമ്മള് പറയുകയാണെങ്കില് ഇതൊക്കെത്തന്നെയാണു വരിക നമ്മള് ജാഗ്രത പാലി ണോ നമ്മള് ഉറക്കമൊഴിച്ചു യാത്ര ചെയ്യുമ്പോള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് പിന്നെ പക്ഷെ എന്നിരുന്നാലും ആ ഒരു വൈബ് വണ്ടി ഇങ്ങനെ ഉടനീളമങ്ങനെ യാത്ര ചെയ്തു പോവുക അതുപോലെ പ്രകൃതി ആസ്വദിക്കുക കാറ്റു കൊള്ളുക അങ്ങനത്തൊരു ഫീല് അതു പഠിച്ചുകിട്ടിയാലതൊരു നമ്മുടെയൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയാൽ പിന്നെയതൊരു സർവസാധാരണമാണ് അതൊരു എൻജോയ്മെന്റാണ് ഇനിയെത്ര ദീര്ഘ ദൂരമാണെങ്കിലും ദീർഘമില്ലാത്തൊരു സ്ഥലത്ത് പോവാണെങ്കിലും നമുക്ക് വളരെ എൻജോയ്മെന്റ് എന്റര്ടെയ്ൻമെന്റാകും നമ്മുടെ ഈ നമ്മുടെ സ്വന്തം വണ്ടി അപ്പോള് അതിനെ പരിപാലിക്കുന്നതിനു നമുക്ക് അത്രത്തോളം നമ്മളെയും അതു പരിപാലിക്കുന്നുണ്ട് അതു നമുക്കൊരു എൻജോയ്മെന്റ് തരികയാണ് എന്റര്ടെയ്ന്മെന്റ് തരുന്നുണ്ട് പലരും അതിനെ സ്വന്തം വീട്ടുകാരെപ്പോലെയാണു കാണുന്നത്